ഹലോ ഒരു മിനിറ്റെ ഒരു മിനിറ്റെ ഒരു മിനിറ്റെ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഹലോ ആ ഇത് റെയിൽവേ ബുക്കിംഗ് ഓഫീസാണോ ആ ഞാനേ എനിക്കൊരു ടിക്കറ്റ് ൻ്റെ അവൈലബിലിറ്റിയെ കുറിച്ച് ചോദിക്കാനായിരുന്നു ഞാനെന്നാ സ്ഥിരമായിട്ട് ജോലി ചെയ്തൊരു ട്രൈൻ പാ യാ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഹിമാചൽ പ്രദേശ് പ്രദേശത്തേക്കാണ് എനിക്കൊരു ടിക്കറ്റിന് വേണ്ടിയത് അത് സിംഗിളാണ് എനിക്ക് ഫസ്റ്റ് ഏ സിയാണ് ഫസ്റ്റ് ക്ലാസിൻ്റെ ഫസ്റ്റ് ഏ സിയിൽ വേക്കൻറ്റുണ്ടോ

അല്ല ഞാൻ ഒരാഴ്ച ഒരാഴ്ച എനിക്ക് ഇത് ഓഗസ്റ്റ് സെവൻറ്റീൻത്തിനാണ് പോകേണ്ടത് അത് ആ സമയത്ത് വന്നാൽ മതിയോ അതോ ആ സമയത്ത് വിളിച്ചു പറഞ്ഞാൽ മതിയോ അതോ ഞാൻ ഓ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണോ അത് ശരി അതെനിക്ക് ലോവർ ബർത്ത് വേണം കേ അത് ഞാൻ നോ അതുകൊണ്ടാ ഇത്ര നേരത്തെ വിളിച്ചത് കാരണം നമുക്ക് പ്രായവൊക്കെ ആയോണ്ടെ ലോവർ ബെർത്തിൻ്റെ സൗകര്യങ്ങളാണ് നോക്കുന്നത് കാര്യം നമുക്ക് അപ്പർ ബെർത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പ്രായവല്ലേ എഴുപത് വയസ്സുണ്ട് ഇ ഇപ്പം ഇപ്പം ഇപ്പം ബെർത്ത് അവൈലബിളാണ് സീറ്റ് അവൈലബിളാണല്ലേ ആ ആ പിന്നെ അടുത്തമാസം ഒരൂ പത്താകുമ്പോഴ്ത്തേനും വിളിച്ചാൽ മതിയോ കാര്യമത് അല്ലെങ്കിൽ പിന്നെ ഞാൻ പിന്നെ നമുക്കേയ് ഇൻഷുറൻസിൻ്റെ വല്ല നമുക്ക് എന്തെങ്കിലും ബെനഫിറ്റ് കിട്ടോ അതായതിപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ

അത് ഞാൻ ചോദിക്ക് നമ്മൾ ചോദിക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ട്രെയിൻ ജേർണിയിൽ ട്രെയിനാക്സിഡൻറ്റാവുന്നു ആയി കഴിഞ്ഞ് കഴിഞ്ഞാലിപ്പം നമ്മൾ ഡെത്താക്വാണെണ്ടെങ്കിൽ ഇപ്പം അത് സർക്കാരീന്ന് തരുന്ന അത് ഗിഫ്റ്റ് മാതിരിയല്ല ചോദിക്കുന്നത് നമുക്ക് ഏതെങ്കിലും നമ്മൾ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഫിക്സഡ് എമൗണ്ട് നമുക്ക് ഇൻഷോർ ചെയ്യാൻ പറ്റോ

മ മതിയാവും മതിയാവും മതിയാവും മതിയാവും

ഓക്കേ ഇത് ഞാൻ പത്തനംതിട്ടേന്നാണ് പത്തനംതിട്ട ഓമൽ ഓമല്ലൂർ അങ്ങനൊരു സ്ഥലം അറിയാവോ കേട്ടിട്ടുണ്ടോ ആ അപ്പോൾ ശരി അപ്പോൾ ആ ആ എന്നാൽ ശരിയെന്നാൽ ഞാൻ അതെ അതെ അത് ടിക്കറ്റ് ഫുള്ളാവുകയാണെങ്കിൽ എനിക്കൊരെണ്ണം എന്നെയൊന്ന് വിളിച്ചു പറയണം ഞാൻ അഡ്വാൻസ് ബുക്ക് ചെയ്തോളാം ശരി ശരി ശരി